ഞങ്ങളുടെ പ്രദേശത്തെ കുറച്ച് പേരൊക്കെ കുറെ കഴിവുകളൊക്കെ ഉള്ളവരുണ്ട് അവർ എന്തേലുവൊക്കെ പരിപാടി വെക്കണോന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലബ്ബ ക്ലബ്ബക്കെയുണ്ട് ഈ അടുത്തുള്ള ക്ലബ്ബ്ണ്ട് ആ ക്ലബ്ബിലിങ്ങനെ പിള്ളേരെ പരിപാടികളായിട്ടും വലിയവരുടെ പരിപാടികളായിട്ടും ഒക്കെ വെക്കും അതിനകത്തെന്ന് നമുക്ക് പങ്കെടുക്കാം പറ്റും അതിനകത്ത് ഈ പാട്ടുണ്ട് ഡാൻസൊണ്ട് പിന്നെ പിള്ളേരുടെ ഓരോ ക് പരിപാടികളെല്ലാം ഉണ്ട് അതിനെല്ലാം നമുക്ക് അതിനകത്തെല്ലാം എല്ലാവരേം പങ്കെടുപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ കുടുംബ ശ്രീയുടെ ഭാഗമായിട്ട് ഒരോ പരിപാടികളൊക്കെ വെക്കുന്നുണ്ട് ആ പരിപാടികളൊക്കെ കഴിവുള്ളവരെല്ലാം പോയി അതിനകത്തെല്ലാം പങ്കെടുക്കാം പറ്റുന്നുണ്ട് പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ ഒരു പരിപാടികളൊക്കെ വെക്കും അന്നേരം ഈ പാട്ടും ഡാൻസുമൊക്കെ അറിയാവുന്നവരൊക്കെ അവരെല്ലാം അതിനകത്തെല്ലാം അവർക്കെല്ലാം അതിനുള്ള അവസരങ്ങളൊക്കെ അവർ കൊടുക്കാറുണ്ട് എന്തേലുവൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ആ ഡാൻസ്കാരെയെല്ലാം അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവർക്കെല്ലാം അവസരങ്ങൾ കൊടുക്കാറുണ്ട് അവർ പിന്നെ അതിനുള്ള ഒരു സമയം നമ്മുടെ ആ നാട്ടുകാർക്ക് വേണ്ടീട്ട് അതിന് വേണ്ടി കുറച്ച് സമയം അവർ കൊടുക്കാറുണ്ട് അതീ കുടുംബ ശ്രീലാണേലും നമ്മൾ ഓരോ കുടുംബ ശ്രീലുള്ള ആൾക്കാരിന്നെല്ലാം തെരഞ്ഞെടുത്തിട്ട് അതീന്ന് കഴിവുള്ളവർ അതിനു പരിപാടിയെക്കെയായിട്ട് പോകാറുണ്ട് അങ്ങനെ ആ എല്ലാ നാടൻ കലാമേളകളെല്ലാം ഉണ്ടെന്നാണ് എന്നാ ഓരോ പ്രദേശങ്ങളിലും നാടൻ കലാമേളകളുവൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനൊക്കെ അ കഴിവുള്ളവർക്ക് അവസരം കൊടുക്കാറുണ്ട് അവരെയൊക്കെ ആ ഞാൻ അതിൻ്റെ ഭാരവാഹികളൊക്കെ അതിനൊക്കെ അവസരം അവർക്ക് കൊടുക്കും കഴിവുള്ളവർക്കാണെങ്കിൽ അല്ലാത്ത വരും അപ്പം അങ്ങനെ പോകാറില്ല കഴിവുള്ളവരെ അങ്ങനെയൊക്കെ പോകാറുള്ളു